എൻ്റെ പ്രോഡക്ട് എന്ന് പറയുന്നത് ഒരു ഫോണാണ് ഫോൺ എന്ന് റെഡ്മി റെഡ്മി ഫോണാണ് അത് എന്നുപറയുന്ന അതിൻ്റെ ക്യാമറ ക്ലാരിറ്റി വളരെ നെഗറ്റീവ് എന്ന് പറയാൻ ക്ലാമര ക്യാമറ ക്ലാരിറ്റി വളരെ കുറവാണ് പോസിറ്റീവ് എന്നത് ഒരുപാട് മെമ്മറി സ്പേസ് ഉണ്ട് മെമ്മറി സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ മെമ്മറി കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല